ആ വെൽക്കം സാർ ഫൈവ് ജി മൊബൈൽസിലേക്ക് സ്വാഗതം പിന്നെ നമ്മുടെ കയ്യില് ഇഷ്ടംപോലെ സ്റ്റോക്കുണ്ട് സാർ പല നിറത്തിൽ പല വലിപ്പത്തിലുള്ള സ്റ്റോക്കുകളുണ്ട് സാർ സാറിന് ഏത് കളറാണ് വേണ്ടത് നമുക്ക് ചുവപ്പ് പച്ച മഞ്ഞ നീല കറുപ്പ് വെള്ള എല്ലാ കളർസും അവൈലബിളാണ് സാർ നമുക്ക് കസ്റ്റമൈസ്ഡ് അവൈലബിളാണെങ്കിൽ ഒരു എക്സ്ട്രാ ഫിഫ്റ്റീ തൗസൻഡ് കൂടെ പൈസ വരും ചാർജ്ജാകും ഫിഫ്റ്റീ തൗസൻഡ് എക്സ്ട്രാ ഫിഫ്റ്റീ ഫൈവ് സീറോ ആ ഫൈവ് സീറോ ഫൈവ് സീറോ യെസ് യെസ് യെസ് ഇല്ലില്ല ഫോണിന് റ്റൂ ലാക്കല്ലേ വരുന്നുള്ളൂ യെസ് കസ്റ്റമൈസ് യെസ് നമ്മുടെ ഇവിടെ സ്റ്റോക്ക് അവൈലബിളാണ് നമ്മള് നമ്മളാണ് ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ഫോൺ ഡീലേഴ്സ് അപ്പം നമ്മുടെ കയ്യില് എല്ലാ സ്റ്റോക്ക്സും അവൈലബിളാണ്

ഞാൻ ലൊക്കേഷൻ അയച്ചേക്കാം ഞാൻ ഇതിൻ്റെ കൂടെ അക്സസറീസ് ൻ്റെ ഡീറ്റെയിൽസ് പറയാമോ സർ നമ്മുടെ കയ്യില് നമ്മുടെ നമ്മുടെ സെവൻ ജി ബി റാം വരും സെവൻ ജി ബി റാമും ട്വൻറ്റി റ്റി ബി സ്റ്റോറേജും വരും കെർവ് ഡിസ്പ്ലെ മറ്റെ ഫുൾ ഡിസ്പ്ലെ പുറകിലൊരു ഡിസ്പ്ലെ ഉണ്ട് പിന്നെ അത് ടെൻ ജി മൊബൈലാണ് അത് ഫൈവ് ഹണ്ട്രെഡ് ഹെർട്സ് ഡിസ്പ്ലെ പിന്നെ ക്യാമറ ക്യാമറയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഫൈവ് ഹണ്ട്രഡ് ഹെർട്സ് പിന്നെ ക്യാമറയെന്ന് പറയുമ്പോള് ടെൻ തൗസൻഡ് എം ബി ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ആ ബാക്ക് ക്യാമറ ട്വൻറ്റി തൗസൻഡ് പ്ലസ് തെർട്ടീ തൗസൻഡ് പ്ലസ് ഫോർട്ടി തൗസൻഡ് പ്ലസ് ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് സിക്സ്റ്റി തൗസൻഡ് ക്യാമറ അതായത് നമുക്ക് ബാക്കിൽ ഫുള് ക്യാമറയാണ് എല്ലാം നമുക്കെങ്ങനെ ഈ എസ് ട്വൻറ്റി ഫോർ അൾട്രയൊക്കെ ഇതിൻ്റെ അടുത്തൊന്നും ഒന്നുമല്ല നമുക്ക് ഏറ്റവും കൂടുതല് ഏറ്റവും കൂടുതൽ ദൂരത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ക്ലിയർ ഫോണാണ് നമ്മുടേത് പിന്നെ ഇതിന്റെ കൂടെ കിട്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാല് ചാർജര് കിട്ടും വയർലെസ് ചാർജര് കിട്ടും പിന്നെ നമ്മുടെ സാറിൻ്റെ വീട്ടില് കുത്തിയിട്ട് കഴിഞ്ഞാൽ സാർ ഇപ്പം കോളേജിലാണെങ്കിൽ അവിടെനിന്ന് ചാർജ് കയറിക്കോളും നമുക്കതിൽ പ്രശ്നമില്ല നമ്മൾ വൈഫൈ ഡിവൈസ് ഓണാക്കുന്നത് പോലെതന്നെയാണ് ഇതും പിന്നെ ആൻഡ്രോയിഡ് സിക്സ്റ്റി ആണ് പിന്നെ തൗസൻഡ് ടെൻ തൗസൻഡ് എ റ്റി പീ നമുക്ക് റെസല്യൂഷനുണ്ട് പിന്നെ വൈഫൈ വൈഫൈ ഹണ്ട്രഡാണ് ബ്ലൂ ടൂത്ത് ഹണ്ട്രഡ് പിന്നെ സാര് പെട്ടെന്ന് വരികയാണെങ്കില് അത്രയും അത്രയും വില കുറച്ച് നമുക്ക് തരാൻ പറ്റും സാറായതുകൊണ്ട് വേണമെങ്കില് ഒരു വൺ ലാക്ക് കുറച്ചു തരാം വൺ ലാക്ക് ഓ കുറച്ചു തരാം സാര് ഒരു വൺ ലാക്ക് വേണമെങ്കില് കുറച്ചു തരാം സാർ സാർ പെട്ടെന്ന് സാധാരണ ആധാർ ഇതിന് കുറച്ച് ഡീറ്റെയിൽസുണ്ട് സാറിൻ്റെ സാറിൻ്റെ ആധാർ കാർഡ് റേഷൻ കാർഡ് പാൻ കാർഡ് ഐ ഡി കാർഡ് കോളേജിൻ്റെ ഐ ഡി കാർഡ് അങ്ങനെയുള്ള കുറച്ച് കാർഡുകൾ വേണം ഇത്രയും കാർഡുകള് കൊണ്ടുവന്നാല് സാറിന് തരാൻ പറ്റുമായിരുന്നു ഓക്കെ ഓക്കെ വിളിച്ചാല് മതി സാറിൻ്റെ ഫോണില് നിന്നൊരു ഹായ് ഇങ്ങോട്ട് വിടുകയാണെങ്കില് ഞാൻ അങ്ങോട്ടയയ്ക്കാം ഒരു ഹായ് ഇട്ടാല് മതി സാർ ഞാൻ അപ്പോള് തന്നെ അയച്ചു തന്നേക്കാം ഓക്കെ താങ്ക് യൂ സാർ ഈ നമ്പര് തന്നെ ഈ നമ്പര് തന്നെ ഓക്കെ താങ്ക് യൂ സാർ